ഗ്രാമീണ കൃഷിയിൽ പ്രാപ്തരായ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ല് കൃഷി അത് തന്നെ ഒരു ഗ്രാമീണ കൃഷിയാണ് അതിന് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഈ കൃഷി വളർത്തി കൊണ്ട് വന്ന് ഇത് കൊയ്ത് എടുത്ത് നെല്ല് കരയിലിട്ട് നെല്ല് വന്ന് സർക്കാരിൻ്റെ അധീനതയിൽ ഉള്ളവരോ പ്രൈവറ്റ് പാർട്ടികളോ എടുക്കുന്നണം വരെ അതൊരു ഭയങ്കര ടെൻഷൻ പിടിച്ച ഒരു പിന്നെ കൃഷി മേഖലയാണ് ഇതിന് വെള്ളം വേണം അതിന് പിന്നെ മറ്റു പണികൾക്കുള്ള തൊഴിലാളികളെ സംഘടിപ്പിക്കണം ആ തൊഴിലാളിയും ആ ചെയ്യുന്ന ആളും കൂടെ കൂടി വേണം ഈ പിന്നെ കൃഷിയെ പൂർണ്ണമായിട്ടും കള പറിച്ചും വെള്ളം കൊടുത്തും വളം ഇട്ടും പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു വിഷയം ഇതിനെ കീടനാശിനി ഇല്ലാ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നിന്ന് ഉണ്ടാവുന്നത് ഈ എന്ത് ഇത് വന്നാലും ഇതിനേ ഈ പുഴുക്കളും പ്രാണികളും കൊണ്ട് ഈ നെല്ലിൻ്റെ കതിരൊക്കെയാന്ന് അതിൻ്റെ അകത്തു വരുന്ന പൾപ്പെന്നു പറയുന്ന പാൽ പോലെയുള്ള അത് വലിച്ചെടുത്ത് ആ നെല്ലിൻ്റെ കതിരിൻ്റെ അകത്തു നിന്നും വലിച്ചെടുത്തിട്ട് അതിനെ പിന്നെ ശൂന്യമാക്കി കളയുന്ന കിടനാശിനി അപ്പം കിടനാശിനി നമുക്ക് തളിക്കണ്ട സാഹചര്യം ഉണ്ടാവുന്നു ആ കിടനാശിനിയൊക്കെ സർക്കാർ സബ്സിഡി ചിലവിൽ കൊടുത്താലേ നമുക്ക് എന്തേലും കൃഷിക്കാരന് വെല്ലുവിളികളെ നേരിടാൻ പറ്റുവുള്ളൂ അതുപോലെ തന്നെ വിത്ത് ഇതെല്ലാം സർക്കാർ വക ഒരു സബ്സിഡി ഇനത്തിൽ വിത്തും പിന്നെ കീടനാശിനിയും വളവും ഒക്കെ സർക്കാർ സബ്സിഡി ഇനത്തിൽ കൊടുത്ത് ഇന്ന് ഈ കൃഷികളെ എല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടു വന്നാൽ നമുക്ക് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സാധനം കൊണ്ട് നമുക്ക് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും ഇപ്പോഴത്തെ നമ്മൾ തമിഴ്നാടോ കർണാടകയോ ഒക്കെ അടച്ചു പൂട്ടുക ആണെങ്കിൽ നമ്മൾ ഇവിടെ പട്ടിണിയായി പോകുമെന്ന് പത്രങ്ങളൊക്കെ പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല എങ്കിലും അപ്പം ഇവിടത്തെ പ്രോത്സാഹന രീതി കുറഞ്ഞോണ്ടിരിക്കുകയാണ് കൃഷിക്ക് കാരണം കൃഷി ചെയ്യുന്നവന് മുതൽ പോലും കിട്ടാത്ത ഒരു കാലഘട്ടമാണ് അതിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു വെള്ളമില്ല വെളിച്ചമില്ല പിന്നെ സാധനങ്ങളുടെ അമിതമായ വിലക്കയറ്റം ഇന്ന് വാങ്ങിക്കുന്ന സാധനം നാളെ ചെന്ന് വാങ്ങിക്കുമ്പം പത്ത് രൂപ ഡിഫറെൻസ് ആണ് പാവപ്പെട്ടവന് വേണ്ടി അടിച്ച് ഏൽപ്പിക്കുന്നത് ആ പ്രവണത ഒക്കെ മാറണം തൊഴിലാളികളുടെ ദിവസക്കൂലിന്ന് പറയുമ്പം ഒരു അറുനൂറ് മുതൽ എണ്ണൂറ് വരെ പല തട്ടത്തിലുള്ള തൊഴിലാളികൾക്ക് കൊടുക്കണം ഇപ്പം കള പറിക്കുന്നതാണെങ്കിൽ അറുന്നൂറു രൂപ അതിമേൽ കിളച്ച് മറിച്ച് ഉഴുവുന്നവരാണെങ്കിൽ എണ്ണൂറ് രൂപ അങ്ങനെ അതിൻ്റെ കൂലി സംബന്ധമായ രീതികൾ തൊഴിലിൻ്റെ വെറൈറ്റി അനുസരിച്ചാണ് ഇവിടെ നമ്മൾ കൊടുത്തു കൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്ത കാലത്ത് ഒക്കെ ഉള്ള കാലം കാലാവസ്ഥയും നമുക്ക് എതിരായി വന്നു കൊണ്ടിരിക്കുന്നു അപ്പം അതും കൃഷിയെ നമുക്ക് ബാധിക്കുന്നുണ്ട് ഈ വെല്ലുവിളികൾ നേരിടാൻ സർക്കാരിനെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുകയും നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുകയും കാലാവസ്ഥയുടെ മാറ്റത്തിൽ വരുന്ന സംഗതികൾ നേരത്തെ അറിഞ്ഞ് അതിന്റെ വേണ്ട രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കൃഷി വൻ വികസന രീതിയിൽ പോകും എന്ന് പറയാം